ഹലോ ആ ആരാണ് അതെ അതെ അതെ

ആ ഇവിടെ പ പാലുണ്ട് പാൽ പാക്കറ്റ് അതുപോലെ തന്നെ കുപ്പിയിലാക്കി കൊടുക്കുന്ന രീതിയുണ്ട്

പിന്നെ ചീസുണ്ട് പേടയുണ്ട് അങ്ങനെ ഒരുമാതിരി പ്പെട്ട മൂല്യ വർധിത ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് ആ അതിന് അത് പശുവിനുണ്ടല്ലോ

മനുഷ്യൻ മനുഷ്യൻ കഴിക്കാൻ കൊള്ളാവുന്ന സാധനങ്ങൾ ആണ് നമ്മുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ പാൽ ഡെ നിങ്ങൾ എന്താണ് റീറ്റെയിൽ ട്രേഡറാണോ റീറ്റെയിൽ ബിസിനസ് നടത്തുന്ന ആളാണോ ആ ഹാ ആ ഹ പാൽ പാലിവിടുന്ന് ഞങ്ങൾ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പാലാണെങ്കിലും മുപ്പത് രൂപയ്ക്കാണ് അര ലിറ്ററ് പാക്കറ്റ് അപ്പം അല്ല നമ്മളെ അതിലെ എം ആർ പിയിൽ വിൽക്കുന്ന രീതിയിൽ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് രൂപയുടെ കുറവിൽ തരാം മൂപ്പത്തിൻ്റെ സാധനത്തിന് ഒരു ഇരുപത്തേഴിന് തരാം പിന്നെ ഞങ്ങൾ വാ ആ ഞങ്ങളുടെ വാഹനം പല റൂട്ടുകളിലായിട്ട് ഓടുന്നുണ്ട് അതിലവിടെ എത്തിച്ചേരും അപ്പോൾ അതിന് പ്രത്യേകിച്ച് ചിലവ് വരുന്നില്ല